ഹലോ ഫുഡ് കോർട്ടാണോ ഒരു ദിവസം ഞാനവിടെ വന്ന് പോയ ഒരു കസ്റ്റമറായിരുന്നു അവിടെ ഞാൻ ഞാനവിടെ വെച്ച് എൻ്റെ ബാഗ് മിസ് ആയല്ലോ മുകളിലത്തെ നിലയിൽ എൻ്റെ ബാഗ് ഉണ്ടോന്ന് ഒന്ന് നോക്കാവോ ഞ ആ മുകളിലത്തെ നിലയിൽ മുകളിലത്തെ നിലയിൽ അല്ല അല്ല ഫുഡ് കഴിച്ച ഇടത്ത് നിന്ന് എൻ്റെ ബാഗ് മിസ്സായത് എൻ്റെ തൊട്ട് അപ്പറെ ആയിട്ട് ഒരു ആൾ ഇരിപ്പുണ്ടായിരുന്നു ഞാൻ ഇറങ്ങി പോന്ന് കഴിഞ്ഞ് താഴെ വന്നതിന് ശേഷമാണ് നോക്കുന്നത് ബാഗ് മിസ്സായിട്ടുണ്ടല്ലോ ഒന്ന് നോക്കാവോ എന്നേ ആ ഓ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കേ വേ ബാഗിൻ്റെ അകത്ത് ബാ എൻ്റെ പാൻ കാർഡ് ആ കാർഡ് അങ്ങനത്തെ എല്ലാമുണ്ട് പിന്നെ എൻ്റെ ഫോണുണ്ട് എല്ലാമുണ്ടായിരുന്നു ആധാർകാർഡൊക്കെ ഉണ്ട് ഓക്കേ ശരി അല്ല മ്മ് ആണോ ഓക്കെ ഓക്കെ ഓക്കേ

ആ ആ ഓക്കേ ഇല്ല ഇല്ല ഞാനവിടെ ഫുഡ് കഴി ആ അവിടെ തന്നെയാണെന്ന് ഉറപ്പുണ്ട് ഫുഡ് കഴിച്ചിറങ്ങിയതിന് ശേഷവാണ് സംഭവിച്ചത് അത് താഴെ അല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നതിന് ശേഷം തന്നെയാണ് ആ ഫുഡ് കഴിച്ചുകൊണ്ട് അവിടെ അത് വരെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു സാധനം അവിടെ വെച്ചാണ് മിസ് ആയേക്കുന്നത് പോലീസിൽ പരാതി കൊടുക്കണമോന്നേ ആ ത് ഞാൻ എന്നെ ഞാൻ ഫുഡ് അവിടെ അവിടെയിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഒരത്യാവശ്യ കോൾ വന്നു അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോണും എടുത്ത് ഞാനിറങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ബാഗ് പെട്ടെന്ന് എടുക്കാനായിട്ട് മിസ്സായിപ്പോയി അപ്പോൾ അതിന്നകത്ത് ആണെൻ്റെ പാ പാസ്സ്പോർട്ടും കാര്യങ്ങളുവെല്ലാം ഇരിക്കുന്നത് ആ ചേച്ചി

ഓക്കേ താങ്ക്യൂ സോ മച്ച് താങ്ക്യൂ സോ മച്ച് ഓക്കേ താങ്ക്യൂ